ഇപ്പം മലയാളഭാഷേനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ സംസ്കാരത്തെയും വ്യക്തിത്വത്തെയൊക്കെ നല്ല രീതിയിലാണ് സ്വാധീനിച്ചിരിക്കുന്നത് കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഓരോ ഭാഷ അതായത് ഓരോ വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും നല്ല രീതിയിൽ ബഹുമാനവും എല്ലാ കാര്യവും ഇപ്പം നമ്മൾ മുതിർന്നവരെ തന്നെ ബഹുമാനിക്കുമ്പം നമ്മൾ നമസ്കാരം ചേട്ടാ അങ്ങനത്തെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അപ്പം അതൊക്കെ അച്ഛൻ അമ്മ ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്ക് നല്ല ബഹുമാനവും എല്ലാ കാര്യവും നല്കുന്നുണ്ട് അപ്പം അവർക്ക് ഒരു എന്താണ് പറയുക ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ വഴിയേ പോകുന്ന ഒരാളെ നമുക്ക് നമസ്കാരം ഇതാക്കിയിട്ടാണ് സൂചിപ്പിക്കുന്നത് എന്താണ് പറയുക ആദരണീയമായിട്ട് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മലയാളത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ബഹുമാനവും എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ കഴിയുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഇപ്പോൾ ആരും നമസ്കാരം ഒന്നും പറയുന്നത് ഇതുവരെ അങ്ങനെ കേൾക്കാത്ത ഒരു ഇതായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇംഗ്ലീഷ് കലർന്നിട്ടാണ് സംസാരിക്കുന്നത് ഗുഡ് മോണിങ്ങ് ഗുഡ് നൈറ്റ് കിടക്കാൻ പോകുമ്പോൾ തന്നെ ശുഭ രാത്രി എന്നൊന്നും ഇങ്ങനെ ആരും പറയുന്നത് ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഗുഡ് നൈറ്റ് അങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പം മലയാളം കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തില് പല ഭാഷകളും അങ്ങനെയാണ് സംസാരിക്കേണ്ടത്